തീർച്ചയായും കുട്ടികളെ എല്ലാരേയും ചരിത്രം പഠിപ്പിക്കണം എൻ്റെ പ്രദേശത്തെ സ്കൂളുകളിൽ എല്ലാം ചരിത്രം പഠിപ്പിക്കാറുണ്ട് അപ്പോൾ അപ്പോൾ കുട്ടികൾ എല്ലാം ചരിത്രം പഠിച്ച് വേണം വളരാൻ കാരണം അവർ എന്ന് ജീവിക്കുന്ന ഈ ഒരു സമൂഹം എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ആയത് എന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കണം നമ്മുടെ ഇന്ത്യ നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ ഒരു കല ഒരു കാലഘട്ടത്തിൽ സ്വാത്രന്ത്യം കിട്ടുന്നതിന് മുൻപ്പ് എങ്ങനെയായിരുന്നു ഇവിടുത്തെ ജീവിതവും മറ്റു കാര്യങ്ങളും ഇവിടെ എങ്ങനയായിരുന്നു എന്ന് അവർ തീർച്ചയായും അറിയേണ്ടതാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഗാന്ധിജി നെഹ്റു അതുപോലെ ടാഗോർ സരോജിനി നായിഡു മംഗൾ പാണ്ടേ ഭഗത് സിങ് അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആ ഒരു എണ്ണമെടുക്കുന്ന സമയത് ഒരുപാട് പേരുണ്ട് ഇവരുടെ ഒക്കെ പ്രയത്നം അവരുടെ ഒക്കെ ആത്മ സമർപ്പണം അതൊക്കെയാണ് പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കാൻ സഹായിച്ചത് അപ്പോൾ ഇതെല്ലാം കുട്ടികൾ പ്രാഥമികമായി അറിയേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ചരിത്രം നമ്മുടെ പ്രദേശത്തെ ചരിത്രം എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇതെല്ലാം കുട്ടികൾ പ്രാഥമിക രീതിയിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് പിന്നീട് ഇതല്ലാണ്ട് നമുക്ക് ഒരുപാട് നമ്മുടെ കേരളത്തിൽ ഉള്ള ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കളുണ്ട് അപ്പൊ നോക്കുവണെങ്കിൽ അയ്യൻകാളി ശ്രീനാരായണ ഗുരു വാക്പാടാനന്ദൻ ചട്ടമ്പി സ്വാമികൾ അയ്യത്താൻ ഗോപാലൻ എകെ കെ കെ കേളപ്പൻ അതുപോലെ മന്നത് പത്മനാഭൻ അങ്ങനെ ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കളുണ്ട് ഇവരെല്ലാം അവരുടെ ആ ഒരു കല കാലഘട്ടത്ത് നില നിന്നിരുന്ന ആരും അനാചാരങ്ങളും അയ്ത്ങ്ങളും മറ്റും മറ്റു പ്രശ്നങ്ങൾ എല്ലാം എതിർത്ത് നിന്ന് അതിന് വേണ്ടി പോരാടിയ സന്നന്ദ സെ സന്നദ്ധ പ്രവർത്തകരായിരുന്നു അപ്പോൾ ഇവരെ കുറിച്ച് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം അവരുടെ ജീവിതം അല്ലെങ്കിൽ നമുക്ക് അവരുടെ ജീവിതം തീർച്ചയായും നമുക്ക് ഒരു പ്രചോദനം തന്നെയാണ് ഇന്നും നമ്മൾ അവരുടെ അവർ ആ അവരുടെ അവർ ചെയ്ത പ്രവർത്തികളിലൂടെ നമ്മൾ അവരെ ഓർക്കുന്നു അത് തന്നെയാണ് ഏറ്റവും വലിയ മഹത്തരമായ കാര്യം അപ്പൊ നമ്മളുടെ കുട്ടികൾ ഇതെല്ലാം പ്രാഥമി പ്രാഥമികമായി ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ചരിത്രം പഠിക്കുക എന്ന് പറയുണത് തീർച്ചയായും ഒരു നല്ല കാര്യം തന്നെയാണ്